ഹലോ ആ ഞാനെ ഒരു കാർപെൻറ്ററാണെ വിളിക്കുന്നത് അപ്പോള് കുറച്ച് ആലപ്പുഴേന്നെ ആ നമുക്ക് തടിയുടെ ഇപ്പോഴത്തെ തടിയുടെ നിലവാരത്തെക്കുറിച്ചൊക്കെ അറിയാനാ അതെ ഇപ്പോള് ഇപ്പോള് തടിക്കൊക്കെ ഭയങ്കര വിലയല്ലേ അപ്പോള് നമ്മുക്കൊരു ഇത് നമുക്ക് തടിയുടെ ഗുണനിലവാരത്തെക്കുറിച്ചും അ നിങ്ങള്ക്ക് വേണ്ടാ മില്ലാണോ അതോ തടി ഉരുപ്പടികള് കൊടുക്കുവാണോ നിങ്ങള് എങ്ങനാ

ഉരുളായിട്ടാണോ വിക്കു ഉരുള് ഉരുള് നമുക്ക് അറുത്തു കിട്ടുമോ നമ്മള് അളവു തന്നാല് ആ ആ അറുത്ത് തരാം അപ്പോള് നമ്മള്ക്കാ ആ അളവുമായിട്ട് വന്നാല് മതി നമുക്കാ സൈസ്സിന് അറുത്തു തരും അല്ലേ നിങ്ങള് ട്രാൻസ്പോർട്ടിംഗ് നമ്മള്ക്ക് എന്തോ ആ വീടുപണിക്കായിട്ടാണ് അപ്പോള് ഞാനൊരു ഞാനൊരു മറ്റെ തടി ഫുൾ വീടിൻ്റെ തടിപ്പണി കോൺട്രാക്റ്റ് എടുത്തിട്ടുണ്ടേ ഏ അപ്പോള് നമ്മള്ക്ക് അവർ തടി ഉൾ ഉരുപ്പടികള് ചെയ്തുകൊടുക്കണം അപ്പോള് അവർക്ക് പിന്നെ ആഞ്ഞിലി ആഞ്ഞിലിയുടെ ആയത് ജനലുകളും അകത്തെ ഡോറുകളും എല്ലാം ആഞ്ഞിലിയും ഫ്രണ്ട് ഡോര് തേക്കുമാണ് വേണ്ടത് അപ്പോള് അതനുസരിച്ചുള്ള അളവ് തന്നാല് നമുക്ക് റീസണബിളായിട്ടുള്ള റേറ്റില് നമുക്ക് തരണം കാരണമെന്നുവച്ചുകഴിഞ്ഞാല് നമ്മള് കൊടുത്തിരിക്കുന്ന റേറ്റില് പണിക്കൂലി ഉൾപ്പെടെ നമുക്ക് മുതലാവണ്ടെ അപ്പോള് ആ റേറ്റില് വേണം നമ്മള്ക്കു സാധനം തരാനായിട്ട് നിങ്ങള് അപ്പോള് എന്നും പറഞ് ക്വാളിറ്റി കുറയ്ക്കരുത് അ ക്വാളി അ അ രണ്ട് ഡോറും വിൻഡോയും തേക്ക് വേണം

അത് ഞാൻ അളവ് ഞാന് കൊണ്ടുവരാം ഞാനെ അളവുമായിട്ട് വരാം നമ്മള്ക്ക് ഉമിക്കടി എന്ത് റേറ്റിന് കിട്ടുമെന്നുള്ളതും നിങ്ങള് ഇവിടെ സാധനം ഇവിടെ എത്തിച്ചു തരുവോ ഇല്ലെന്നോ നമുക്കറിയേണ്ടത് നമുക്ക് റീസണബിളായിട്ട് കുമിക്കടിക്കു തരുവോന്നോ അല്ല ഉരുള് നമുക്ക് അറപ്പിച്ച് അറപ്പിച്ച് തടിയാക്കി തരണം തടിയാക്കി പ്ലെയ്ൻ ചെയ്തുതരണം അറപ്പുകൂലി അറപ്പ് കൂലി സെപ്പെറേറ്റാണോ അതോ അതു കൂടെ ചേർത്താണോ നിങ്ങള് പിന്നെ കുമിക്കടി പറയുന്നെ

നമ്മള്ക്ക് വെള്ള അധികം കയറരുത് നമ്മള്ക്ക് വെള്ള കുറ കുറവായിരിക്കണം നമ്മള്ക്ക് കാതലായിട്ടുള്ള തടി തന്നെ കിട്ടണം എന്താണെന്നുവച്ചുകഴിഞ്ഞാല് ഇവിടെ ആ എന്നാല് നമ്മള്ക്ക് വെള്ള വെള്ള വെള്ളയില്ലാത്ത തടികളാണ് നമ്മള്ക്ക് കിട്ടേണ്ടത് ഞാനിപ്പോള് ഇത്രയും ദൂരം യാത്ര ചെയ്ത് അവിടെ വന്നിട്ട് മൊത്തം വെള്ളയുള്ള തടികളാകല്ല് അതുകൊണ്ടാണ് അഡ്വാൻസായിട്ട് പറയുന്നതേ ഒന്നുടെ ഒന്ന് ടൈറ്റിത് കാണിക്ക് അപ്പോള് ശരി നമ്മള്ക്ക് നേരിട്ട് കാണാം ശരി ശരി